കോവിഡ് ലോക്ക് ഡൗൺ സമയത്ത് മൊബൈൽ കുട്ടികൾക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു എന്നു വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ ഇരിക്കുമ്പം അവർക്ക് ഓൺ ലൈൻ ക്ലാസസ്സും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദോഷങ്ങൾ പറയുമ്പോൾ കുട്ടികൾ അതിനു ശേഷം നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം കുട്ടികൾ മൊബൈലായിട്ട് വല്ലാതെ അഡിക്റ്റായി ചെറിയ കുട്ടികൾ മുതൽ വലിയ വിദ്യ പഠിക്കുന്ന കുട്ടികൾ മുഴുവനും സ്വ സ്വന്തമായിട്ട് ഫോണുകളായി കാരണം മുൻപൊന്നും അങ്ങനെയൊരു ഫോൺ സ്വന്തമായിട്ട് അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എല്ലാവർക്കും സ്വന്തമായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ട് ഫോണുകളായി അതൊക്കെയാണ് ഈ ലോക്ക് ഡൗൺ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഫോൺ ഫോണിൻ്റെ ഈ സംഭവങ്ങൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും